എനിക്ക് രണ്ടായിരം രൂപ വാടക വേണം

അത് ശരിയാകൂല ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാവരും ഈ പൈസെന്നാണ് വാങ്ങാറുള്ളത് ആ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈ പൈസെന്നാണ് വാങ്ങലുള്ളത് ഞങ്ങൾക്കും ജീവിക്കണ്ടെ സാറേ ഇല്ലേ അത് പറ്റൂല ഞങ്ങൾക്ക് ഞങ്ങളെല്ലാരുടെടുത്തുന്നും രണ്ടായിരം രൂപയാണ് വാങ്ങൽ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടായിരം അതോക്കെ പക്ഷേ ഞങ്ങൾ രണ്ടായിരം രൂപെന്നേണ് ഞങ്ങൾ സാധാരണ വാങ്ങാറുള്ളത് ഞങ്ങൾക്ക് കുറക്കാൻ കയ്യൂല്ലത് അതെങ്ങനെ സാറേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നാൽ ഒന്ന് തൊള്ളായിരം

ആ ഓക്കെ